ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫോണിനാണെങ്കിലും ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും കമ്പ്ലൈന്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമ്മളിപ്പോൾ ഒരു വർഷം ഗ്യാരണ്ടിയുള്ള ഫോ ഫോൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് നേരെ സർവീസ് സെൻ്ററിലൊക്കെ കൊണ്ടുപോയിട്ട് റീ സർവീസ് ചെയ്യാനാണ് നമുക്ക് നമ്മുടെ അടുത്ത് നമ്മളെ അടുത്ത് കൊടുത്താൽ മതി ഇപ്പം ഇപ്പം നമ്മൾ ഉപയോഗിച്ചിട്ട് ഇപ്പം ഒരു മാസമായിട്ടേയുള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും കംപ്ലയിന്റ് ഇപ്പോൾ ബാറ്ററിക്കെന്തെങ്കിലും കമ്പ്ലൈന്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കാ ഫോൺ അവർ റിപ്ലേസ്മെൻ്റ് ചെയ്തുതരണം കാരണം നമ്മളാ ഫോൺ കൊടുത്തിട്ട് നമുക്ക് പുതിയ ഫോൺ അതായത് പുതിയ ഫോൺ തരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് നല്ലൊരു കര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയിട്ട് ഒരു മാസം യൂസ് ചെയ്തപ്പോഴത്തേക്കും കമ്പ്ലൈന്റ് കാര്യങ്ങളൊക്കെ വന്ന്കഴിഞ്ഞാൽ അവർ മാറ്റി തരണമല്ലോ അപ്പോൾ അത് മാറ്റി തരാറുണ്ട് നല്ല രീതിയിലുള്ള സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പല രീതിയിലുള്ള അതായത് ബ്രാൻഡുകളും കാര്യങ്ങളും ഒക്കെയുണ്ട് പിന്നെയെന്നു പറഞ്ഞാൽ ലാപ്ടോപ്പിനെന്തെങ്കിലും പ്രശ്നം വന്നാലും ഇതേ ഇതേ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഫോണുകൾ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യമേയുള്ളൂ നമ്മളിപ്പോൾ നല്ലൊരു സർവീസ് സെന്റർ അതായത് സർവീസ് സെൻ്ററില്ലെങ്കിൽ നമ്മളിപ്പോൾ മൊബൈൽ ടെക്നീഷ്യന്മാരോക്കെയുണ്ടാകും അപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ അവിടെ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള അവർ നല്ല രീതിയിൽ അത് റെഡിയാക്കി തരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മതി